ഹലോ ആ ഞാനടുത്തുള്ള കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുകൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ യാത്രക്ക് വേണ്ടിയിട്ട് ഒരു കാർ ബുക്ക് ചെയ്യാനായിരുന്നു ക്യാബ് അതെയതെ അപ്പതിൻറെ വിലയുടെ കാര്യവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കണം നാലുപേര്ക്കിരിക്കാവുന്നതിന്റെയു ആറുപേര്ക്കിരിക്കാന്നേന്റെ പറഞ്ഞോളൂ മണിക്കൂര് ചാര്ജ് പറഞ്ഞാൽ മതിയെ ഒ കിലോ മീറ്റർ കാണിക്കത്തിലാണല്ലേ ഓക്കെ ഓക്കെ ആ ഇരുന്നൂറ്റൻപത് കിലോ മീറ്ററിന് മൂവായിരം ഏതാ നാലു പേർക്ക് അഞ്ചുപേര്ക്കുള്ളതിൽ ഓക്കെ അപ്പോൾ ആറുപേര്ക്കുള്ളതെന്നാകുമ്പം അതിന് കൂടുതൽ നാലായിരം ഒ ഓ ആ അയ് അത്രയേ ആവു അല്ലേ ഓക്കെ ശരി